ഞാൻ ഒരു രണ്ട് ചപ്പാത്തിയും ഒരു നാല് പൊറോട്ടയൊക്കെ ആയിരുന്നു ആദ്യം ഓർഡർ ചെയ്തത് ഒരു ബിരിയാണി അപ്പോൾ എനിക്ക് ഓർഡറിൽ കുറച്ച് മാറ്റം ഉണ്ട് ഒരു പത്ത് പൊറോട്ട മതി ചപ്പാത്തി ക്യാൻസൽ ചെയ്തേര് എന്നിട്ട് പിന്നെ ബീഫും ബീഫ് വരട്ടിയതും ബീഫ് കൊണ്ടാട്ടം അങ്ങനെയുള്ളത് പിന്നെ ഒരു പിന്നെ പനീർ ബട്ടർ ഞാൺ കറി പിന്നെ ഒരു ഫുൾ മന്തി ഹാഫ് വേണ്ട ഫുൾ മന്തി മട്ടൻ മന്തി മതി പിന്നെ ഒരു രണ്ട് ഒരു മൂന്ന് ചിക്കൻ ബിരിയാണി അത് ആദ്യം കുറച്ച് ആൾക്കാരെ ഉള്ളൂ എന്ന് വെച്ചു ഇപ്പോൾ ആൾക്കാർ കുറച്ച് കൂടുതൽ ഉണ്ട് അപ്പം അത്കൊണ്ടാണ് ഈ ഓർഡറിൽ കുറച്ച് വേരിയേഷൻ വരുത്തിയത് എല്ലാവർക്കും ഇഷ്ട്ടമുള്ള ഫുഡ് വാങ്ങാമെന്ന് കരുതിയത്